ഹലോ ഇത് ലൈബ്രറിയല്ലേ ഓക്കേ അവിടെ ചെമ്മീൻ്റെ തകഴിയുടെ ചെമ്മീൻ ബുക്ക് അവിടെ ഉണ്ടോ എനിക്ക് ഞാൻ വിളിക്കുന്നത് കഞ്ഞിക്കുഴി സ്ഥലത്തുനിന്നാണ് കഞ്ഞിക്കുഴി ആയ് ആ

തകഴിയുടെ തകഴിയുടെ ഓക്കേ ഓക്കേ ക്കേ അതിന് എന്തെങ്കിലും പ്രൊസീജിയറ് ഉണ്ടോ ഇങ്ങനെ എടുക്കന്നതിന് ഞാൻ ആദ്യമായിട്ടാ അവിടെ വരുന്നത് ആണോ മ് ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ ഇന്ന് ഒക്കേ എന്നത്തേക്ക് വന്നാലാ ഏത് സമയത്താണ് അവിടെ കൂടു അവൈലബിൾ ആകുന്നേ എപ്പം വരണം അവിടെ ഓക്കേ അതുപോലെ പൗലോ കുയ്ലോയുടെ ബുക്ക് ഉണ്ടോ അവൈലബിൾ ആണോ ആല്ക്കെമിസ്റ്റ് അതെയോ അതുപോലെത്തെ സങ്കീര്ത്തനം പോലെ എന്നുള്ള പെരുമ്പടവം എഴുതിയ ബുക്ക് ഉണ്ടോ അവിടെ അതുപോലെ ഹിസ്റ്റോറിക്കൽ ആയിട്ടു പുസ്തകങ്ങളൊക്കെയുണ്ടോ ഈ എനിക്ക് ചരിത്രപരമായിട്ടു കുറച്ചു കാര്യങ്ങൾ അറിയാനായിട്ടാ നമ്മുടെ ഇന്ത്യേടെ ചെയ്ഞ്ചിങ്ങ് ചരിത്രത്തിൻ്റെ കുറിച്ചുള്ള ആ കുറച്ച് കിട്ടത്തക്ക രീതിയിലുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടു പുസ്തകങ്ങളുണ്ടോ ഓക്കേ ഈ

ഓക്കേ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ആ താങ്ക് യു